ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കണ്ട് വരുന്നത് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതും ഫുട്ബോളുമാണ് ഫുട്ബോളിന് വേണ്ടി നമുക്കൊരു ഗ്രൗണ്ട് തന്നെയുണ്ട് വലിയ ഗ്രൗണ്ട് അവിടെ വലിയ അത്യാവശ്യം മേജറായിട്ടുള്ള ടൂർണ്ണമെൻസൊക്കെ നടക്കുന്നത് കാണാറുണ്ട് പിന്നെ കുട്ടികൾ ക്രിക്കറ്റ് ആണ് കൂടുതലും കണ്ട് വരുന്നത് കുട്ടികളൊക്കെ കളിക്കുന്നത് അതിപ്പം ഗ്രൗണ്ടായിട്ട് ഒന്നും അല്ല പ്രത്യേകിച്ചും കുട്ടനാടൻ സൈഡിലോട്ടൊക്കെ വരുമ്പത്തേക്കും കൃഷി കഴിഞ്ഞ പാടങ്ങൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വെള്ളം കയറ്റുന്നതിന് മുന്നെ വെറുതെ കിടക്കുമല്ലോ അപ്പം ആ സമയത്താണ് കുട്ടികൾ കൂടുതലും ക്രിക്കറ്റിനായിട്ട് ഇറങ്ങുന്നത് അപ്പം അവധിക്കാലം ഒക്കെ ആണെങ്കിൽ അവിടെയാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ആക്കി അവർ മാറ്റുന്നത് നമ്മളെ കൃഷി ചെയ്യുന്ന സ്ഥലം അപ്പം എപ്പഴും കാണാം എല്ലാ കൃഷിയിടത്തും കാണാം ഇങ്ങനെ കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നത് പിന്നെ പള്ളികളിലോട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ വൈകുന്നേരം കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കാണാം ക്രിക്കറ്റിനേക്കാളും കൂടുതൽ ഫുട്ബോൾ ആണ് അങ്ങോട്ട് അങ്ങനെയൊക്കെ കാണുമ്പത്തേക്കും വരുന്നത് പിന്നെ ഷട്ടില് കളിയും ഷട്ടിലും അത്യാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഷട്ടിലും അപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് തന്നെയാണ് ക്രിക്കറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പിന്നെ ഫുട്ബോളും ഉണ്ട് ഷട്ടിലും ഉണ്ട്